ഞങ്ങൾ നീന്താൻ ആഗ്രഹിക്കുന്നത് ഒരു നെയ്യാർ ഡാം എന്ന ഒരു ഡാമുണ്ട് ഡാമിൻ്റെ തേക്കൽ ഞങ്ങൾ ഇവിടെ വിഴിപ്രദേശം വരെ നീണ്ടുനിൽക്കുന്നുണ്ട് അതിനാൽ അവിടെ പോയി ഞങ്ങൾ കുളിക്കാറുണ്ട് നീന്തി പഠിക്കാറുണ്ട് നീന്തി ഉല്ലസിച്ച് ഞങ്ങളവിടെ നിൽക്കാറുണ്ട് അവിടെയൊന്നും

ഞങ്ങളിവിടുന്ന് കുറച്ച് പേര് ഞാൻ അതിനുവേണ്ടി പോയി ടൂറുമായിട്ട് പോയി ഞങ്ങൾ കുളിക്കേം നനക്കേം ചെയ്ത് വരാറുണ്ട് ഒരു വിനോദസഞ്ചാരമായി മാറുന്ന ഒരു പ്രദേശമാണ് നെയ്യാർൻ്റെ സംഭരണിയിലെ ജലം വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് നെയ്യാർ ഡാം അതിൻ്റെ തേക്കൽ അതിൻ്റെ വെള്ളം കെട്ടി കിടക്കുകയും പോലെ അവിടെ പോയി കാണുന്നതിനും കുളിക്കുന്നതിനും എല്ലാ സംവിധാനവും അവിടെയുണ്ട് നല്ല നീന്തി കുളിക്കുന്നതിനും നല്ല താഴ്ച്ചയുള്ള സ്ഥലവുമാണ് വളരെ സൂക്ഷിച്ചു വേണം പുഴയിൽ നിന്ന് കുളിക്കാനും നിൽക്കാനും ഒക്കെ അങ്ങനെ നല്ല ഒരു പ്രദേശത്തേക്കാണ് ഞങ്ങളുടെ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്